ഞാൻ പാരമ്പര്യമായി ഇതുവരെ നീന്തൽ പരിശീലന പരിപാടിയൊന്നും പരീക്ഷിച്ചിട്ടില്ല പക്ഷെ എങ്കിൽ ഞങ്ങള് ധാരാളം പുഴകളും തോടുകളും വെള്ളവും കൂടുതലുള്ള പ്രദേശമായ കുട്ടനാട് പ്രദേശത്തിലാണ് ജീവിക്കുന്നതും ജീവിച്ചുവരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനിച്ചു വരുന്ന കുട്ടികള് ഒരു ഒരുവിധം പ്രായമാകുമ്പോളവര് നീന്തൽ പരിശീലിച്ചിരിക്കും നീന്തല് അത് പരിശീലിച്ചേ പറ്റു അതാണ് അവിടുത്തെ സാഹചര്യം ഞങ്ങള് മുതിർന്നവര് കുളിക്കാൻ കൊണ്ടുപോകുമ്പോള് പുഴയിലോ അല്ലെങ്കിൽ ആറ്റിലോ തോട്ടിലൊക്കെ പോയാണ് ഞങ്ങള് കുളിക്കുന്നത് എന്നാലപ്പോള് നമ്മളെ കുറ്റിയെ പിടിപ്പിച്ച് കാലിട്ടടിപ്പിച്ച് നീന്തൽ പഠിപ്പിച്ചെടുക്കും നമ്മളെ നീന്തല് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം നീന്തലറിയാവുന്നവരാണ് തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളും പുരുഷന്മാരും അങ്ങനൊരു സാഹചര്യമാണ് ഞങ്ങളുടെ അവിടെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഞങ്ങള് നല്ല രീതിയിൽ നീന്തി പരിശീലിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കു പലരീതിയിലുള്ള നീന്തലില് പല രീതികള് നീന്തലിലറിയാം ധാരാളം സമയം ഞങ്ങള് വെള്ളത്തിൽ കുളിക്കുമ്പോൾ പിന്നീട് ഉയർന്നുകഴിഞ്ഞ് കുളിക്കുമ്പോള് ഞങ്ങള് മുങ്ങാംകുഴിയിട്ട് ഒരോരോ കളികള് വെള്ളത്തിൽ പാത്ത് കളിക്കുന്ന ഓരോരോ കളികള് ഒക്കെ അഭ്യസിച്ച് വരുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങള് കഴിഞ്ഞു പോരുന്നത് അതുപോലെതന്നെ ഫ്രീസ്റ്റൈല് ബാക്ക് സ്ട്രോക്ക് അങ്ങനെയുള്ള പല നീന്തൽ രീതികള് ഞങ്ങൾക്കറിയാം ഞങ്ങളങ്ങനെ നീന്തി പരിശീലിച്ച് പോന്നിട്ടുള്ളതാണ് യോഗയൊന്നും ഞങ്ങള് സാധാരണഗതിയില് അഭ്യസിക്കാറില്ല അതുകൊണ്ടുതന്നെ നീന്തലിൻ്റെ മത്സരത്തിനുതകുന്ന രീതിയിലുള്ള പല നീന്തൽ പരിശീലനങ്ങള് ഞങ്ങൾക്കറിയാം നീന്തൽ രീതികള് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പല മത്സരങ്ങളും പണ്ട് പണ്ട് പല രീതിയിലുള്ള നീന്തലിൻ്റെ മത്സരങ്ങള് സംഘടിപ്പിക്കാറുണ്ട് ക്ലബ്ബുകളും മറ്റുമൊക്കെ അതിലൊക്കെ അധികം ഞങ്ങള് പങ്കെടുക്കാറുണ്ട് ധാരാളം സമയം വെള്ളത്തിൽ നീന്തി പരിശീലിച്ചിട്ടുള്ള ആണ് ഞങ്ങള് വെള്ളത്തില് പോലെ നീന്തൽ രീതികള് പലതും ഞങ്ങള് പല ദിവസവും ഞങ്ങളുപയോഗിക്കാറുണ്ട് എപ്പോഴും ഞങ്ങള് തോട്ടിലും ആറ്റിലൊക്കെ തന്നേ ആണ് കുളിയും നീന്തൽ അപ്പോൾ ഞങ്ങള് നീന്തിയിട്ട് പരിശീലിക്കും അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയില് നീന്തൽ പരിശീലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോള് ഞങ്ങളുടെ അവിടെ സ്കൂളുകളിലും ഒക്കെ കുട്ടികളെ നീന്തൽ പരിശീലനം ചെറുപ്പത്തിലേതന്നെ പരിശീലനം നടത്താനായിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകളും അതിനുള്ള പരിശീലന സമയങ്ങളും ഉണ്ട് കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും നീന്തൽ പരിശീലിച്ചിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത